എൻ്റെ ജീവിതത്തില് സ്പോർട്സിൻ്റെ പങ്കെന്ന് പറയുമ്പോള് എന്നെ നല്ല പോലെ സ്വാധീനിച്ചിട്ടുണ്ട് അത് എൻ്റെ ദൈനംദിനജീവിതത്തിലെ പ്രവർത്തനങ്ങള് മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോള് ഇപ്പോള് എനിക്ക് നല്ല പോലെ നല്ല ഊർജ്ജസ്വലത പിന്നെ നല്ല ഫ്ലെക്സിബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി പിന്നെ എനിക്ക് നല്ല ഫോക്കസോടെ കാര്യങ്ങള് ചെയ്യാനും എനിക്ക് നല്ല പോലെ എൻ്റെ പഠിത്തത്തിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഫോക്കസെയ്യാൻ പറ്റി അതെനിക്ക് നല്ലൊരിതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ സ്പോർട്സിലൂടെ ഉണ്ടായ വേറൊരു മാറ്റമെന്നു പറഞ്ഞാല് എൻ്റെ ആ ആത്മവിശ്വാസം കൂടി എൻ്റെ നല്ല കോണ്ഫിടെന്റ്റായി ഞാൻ എൻ്റെ ആത്മവിശാസമൊക്കെ കൂടി ഞാനിപ്പോള് കളിക്കാനൊക്കെ പോകുന്നുണ്ട് പുറത്തൊക്കെ നടക്കാനും ഓടാനൊക്കെ പോകുന്നുണ്ട് ആപ്പോഴതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ എൻ്റെ മനസികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കു നല്ല പോലെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോള് നാളെ നടക്കാൻ പോവുമ്പോള് നല്ലൊരു ഉന്മേഷം കിട്ടും പിന്നെ നല്ല സന്തോഷം കിട്ടും അപ്പോഴങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കാനും ഓടാനൊക്കെ പോകാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വേറെ സ്പോർട്സെന്ന് പറയുമ്പോള് പിന്നെ ബാഡ്മിൻറൺ കളിക്കും മുൻപ് ഫുട് ബോള് കളിക്കുമായിരുന്നു ക്രിക്കറ്റും കളിക്കുമായിരുന്നു ഇപ്പോള് ക്രിക്കറ്റ് കളിക്കുന്നില്ല പിന്നെ ഫുട് ബോൾ ഉണ്ട് ബാഡ്മിൻറൺ ഉണ്ട് ബാഡ്മിൻറൺ ഞാൻ ഇടയ്ക്കെൻ്റെ കസിൻസിൻ്റെ ഒക്കെ കൂടെ കളിക്കാറുണ്ട് എൻ്റെ സഹോദരങ്ങളുടെ കൂടെ കളിക്കാറുണ്ട് അപ്പോള് ശാരീരികവും മാനസികവും ആയിട്ട് വളർച്ചയ്ക്ക് എനിക്ക് വളരെ ഇത് പിന്നെ കഴിവുകള് വളർത്തുന്നതിലെന്നു പറയുമ്പോള് നമ്മള് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമ്പോള് നമ്മുടെ ലീഡർഷിപ് നമ്മടെ നേതൃത്വം വഹിക്കാനുള്ള സ്കില്ലൊക്കെ കൂടും അപ്പോഴങ്ങനെ അതും എനിക്ക് കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് അത് ഇത് ഈ സ്പോർട്സില് കളിച്ചതിനുശേഷം എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട് അപ്പോഴെന്തായാലും ഈ പറയുംപോലെ കോളേജ് കോളേജല്ല കോളേജില് ഞാൻ ഫ്രണ്ട്സുമായിട്ട് സ്പോർട്സില് ഏർപ്പെടാറുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പോള് സ്പോർട്സ് എൻ്റെ ജീവിതത്തിലെന്നെ നല്ലൊരു സ്വാധീനം ചെലത്തിയിട്ടുണ്ട് ഇപ്പോള് ഞാൻ സ്പോർട്സിനെ ഇതിനെപ്പറ്റി പറയാൻ തന്നെ ആണെങ്കില് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എൻ്റെ കൂട്ടുകാര് എൻ്റെ വീട്ടുകാര് അവർക്കൊക്കെ

പിന്നെ ജീവിത ശൈലീ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഇത് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോള് വ്യക്തിപരമായിട്ട് എന്നില് കുറേ മാറ്റങ്ങളുണ്ടായി അതുകൊണ്ടുതന്നെ ഞാൻ മറ്റുള്ളവരിലും ഇത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴെന്തായാലും എൻ്റെ ആത്മവിശ്വാസം വളർത്തി എന്നെ എനിക്ക് നല്ല നല്ല ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവു മെച്ചപ്പെടുത്തി എൻ്റെ ശാരീരികവും മനസികവുമായിട്ടുള്ള വളർച്ചയ്ക്കും എന്നെ സ്പോർട്സില് ഏർപ്പെടുന്നത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്